ടെക്സ്റ്റ് ടു സ്പീച്ച് വിവർത്തനങ്ങളുടെ രൂപത്തിൽ പ്രായമായവർക്കും കാഴ്ച വൈകല്യമുള്ളവർക്കും സാങ്കേതികവിദ്യ ഒരുപാട് സഹായങ്ങളാണ് നൽകിയിരിക്കുന്നത് കാര്യം ഇപ്പം പ്രായമായവർക്ക് ഒക്കെയാണെങ്കിൽ അവർക്ക് ടൈപ്പ് ചെയ്യാൻ മറ്റും വളരെ ബുദ്ധിമുട്ടുണ്ടാകും ആ സമയത്ത് അവർക്ക് വായ കൊണ്ട് പറയുന്നത് അത് സ്വയം ടൈപ്പ് ചെയ്തു വരുമ്പോൾ അവർക്ക് മെസേജുകൾ അയക്കാനും റിസിവ് ചെയ്യാനും ഒക്കെ ഉപകാരമുള്ളൊരു ഒരു കാര്യമാണ് പിന്നെ അവർക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രാ വൈകല്യം കണ്ണു കാണാത്ത കഴ്ച ശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് ഒക്കെ അവർക്ക് വായ കൊണ്ട് പറഞ്ഞാൽ മതി പറയുന്ന സമയത്ത് അവർക്ക് എന്താകും ആ പറയുന്നത് ടെസ്റ്റായിട്ട് ടെക്സ്റ്റ് എന്ന രൂപേണ വരുമ്പോൾ അവർക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ ഒന്നിനും അതികം ബുദ്ധിമുട്ടുണ്ടാവില്ല അത് നമ്മുടെ സാങ്കേതിക വളർച്ചയിൽ ഒരു നിർണായക നാഴികക്കല്ലാണ് വളരെ നല്ലൊരു കാര്യമാണ് അത് അതിന് മാത്രമല്ല ഇപ്പൊ സ്പീച്ച് ടു ടെക്സ്റ്റ് ആണെങ്കിൽ നല്ലതാണ് കാര്യം നമ്മളിപ്പം സംസാര ശേഷി ഇല്ലാത്ത ഒരാളാണ് അയ്യാൾക്ക് ഒരാളോട് സംസാരിക്കാൻ ഉള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ അയാൾക്ക് ടെക്സ്റ്റ് അയാളുടെ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ഒന്ന് വോയിസ് ആക്കി കഴിഞ്ഞാൽ മതി അത് സംസാരം തന്നെ ഫോൺ തന്നെ അതിൻ്റെ ശബ്ദം കൊണ്ടുവന്നോളും അത് കൊണ്ട് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല അങ്ങനെയുള്ള നല്ല നല്ല സാങ്കേതിക മികവുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് പ്രായമായവർക്കും മറ്റു വൈകല്യമുള്ളവർക്കും ഒക്കെ ഏറെ ഉപകാരം ഉള്ള കാര്യമാണ് ഞാൻ അതിനെ ഭയങ്കരമായിട്ടാണ് പ്രോത്സഹിപ്പിക്കുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതു പോലെ ബി എം ഐ എസ് ആപ്പ് മുതലായ ആപ്പുകളും മറ്റും ആപ്പുകൾ ഉപയോഗിച്ച് പിന്നെ ചില ചില സൈറ്റുകൾ വെബ് സൈറ്റുകൾ ഇതിൽ സഹായിക്കുന്നു ക്രോം ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് സ്പീച്ച് ടു ടെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുക പ്രായമായവർക്കും ഇപ്പം ജി പേ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രായമായവർക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ ഒക്കെ അവർക്ക് ഒക്കെ ഏറെ എളുപ്പമായിരിക്കും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് സ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കും വേണ്ടി കാഴ്ച ശക്തി കേൾവി ശക്തി സംസാര ശേഷി ഇല്ലാത്ത ആൾക്കാർക്കും അവർക്കും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതായിരിക്കും അങ്ങനെ നല്ല നല്ല ഉപയോഗങ്ങൾ ഉണ്ട് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന വിവർത്തന രൂപം കൊണ്ട്